ഞാൻ മണിപ്ലാൻ്റ് മണിപ്ലാൻ്റ് ആണ് വള്ളിച്ചെടികളിൽ മണിപ്ലാൻ്റ് ഉണ്ട് സിങ്കോണിയം ഉണ്ട് സിങ്കോണിയം പിന്നേ ആ അങ്ങനത്തെയൊക്കെ ഉള്ള ഇതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വള്ളിച്ചെടികളായിട്ടുള്ളത് പിന്നെ പ്ലാൻ്റ് ചെടികൾ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്റോർ ആണ് കൂടുതൽ പിന്നെ ക്യാറ്റക്സ് ഉണ്ട് റോസ് ഉണ്ട് പൂവുള്ള ചെടികളാണെങ്കിൽ റോസ്സും ബോൾഫും ഉണ്ട് പിന്നെ ഇന്റോർ ആണെങ്കിൽ കലേഡിയം പിന്നെ അങ്ങനെ കുറേ ഉണ്ട് റബ്ബർ പ്ലാൻറ് സിങ്കോണിയം ഉണ്ട് പിന്നേ ഏയ്ഞ്ചൽ വിംഗ്സ് ഉണ്ട് കുറച്ച് ചെടികൾ അങ്ങനെയുള്ള ചെടികളാണ് വളർത്തുന്നത്